സൃഷ്ടിപരവും സ്വാധീന ശക്തിയുള്ളതുമായ പരസ്യത്തെക്കുറിച്ചു പറയുമ്പോഴത്തേക്ക് അത് നടീ നടന്മാരെ വച്ചാണ് ഇപ്പം കൂടുതൽ പരസ്യങ്ങളും കൊടുക്കുന്നത് അന്ന് അപ്പം അങ്ങനെയുള്ള അവരെക്കൊണ്ട് പരസ്യം ചെയ്യിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ അതായത് ഇത് നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അത് പരസ്യം അവരെക്കൊണ്ട് ചെയ്യിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വിപണനം ഉണ്ടാവുകയും അത് ആൾക്കാരറിയുകയും അത് അവിടെ അങ്ങനെയുള്ള അത് സാധനങ്ങൾ അവർ മേടിക്കുകയും ചെയ്യും പരസ്യങ്ങൾ വഴി അതു പിന്നെ അതു കൂടാതെ ഇപ്പം ഫേസ്ബുക്ക് വഴിയും ഓൺലൈൻ ഇത് മാധ്യമങ്ങൾ വഴിയും നമ്മൾ കൂടുതൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് പരസ്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മുക്കിതിനെ ചിലവുകൾ കുറഞ്ഞു വരുന്നത് ആരും മേടിക്കാതെ വരും അതുകൊണ്ട് സ്വാധീന ശക്തി ഉള്ളതും ആയ പരസ്യത്തെ പരസ്യം കൊണ്ടു മാത്രമേ നമ്മൾ ഏത് ഏതു കാര്യം അതായത് ഏത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും അത് വിറ്റഴിക്കാൻ സാധിക്കുന്നത് ഈ പരസ്യത്തിലൂടെ നല്ല അതായത് സ്വാധീനമുള്ളവരുടെ പരസ്യത്തെക്കുറിച്ചും പരസ്യത്തിലാണെങ്കിൽ മാത്രമേ ഉള്ളു